ആ ഹലോ ഞാനാണ് ഇപ്പം എവിടെയാണ് എവിടെയാണ് ആ ആ ആ സാധനങ്ങളെല്ലാം തീർന്നു എല്ലാ സാധനങ്ങളും തീർന്നല്ലോ ഇനി കുറച്ചു സാധനങ്ങളൊക്കെ മേടിക്കണയിരുന്നു എല്ലാം ആണോ ആ എല്ലാ സാധനവും അല്ല വീട്ടുപയോഗത്തിനുള്ള സാധനം മതി ആ

ആ ഇത് ഈയിടെ അവർ എല്ലാവരും ഇല്ലായിരുന്നോ പിന്നെ പിള്ളേരെല്ലാം ഉള്ളപ്പോൾ സാധനം തീരും ആ ആ ആ അരി എല്ലാം തീർന്നു ആയിരിക്കും

എന്നാ ലിസ്റ്റ് ഇപ്പോൾ പറയണോ ഇപ്പം പറഞ്ഞേക്കാം എന്നാൽ നോട്ട് ചെയ്തു വച്ചോ അരി കുത്തരി കുത്തരി നിർമ്മൽ

പത്ത് കിലോ പത്ത് കിലോ മേടിക്ക് പിന്നെ പച്ചരി പത്ത് മതി ആ ആ പൊന്നി അരി ആ പൊന്നി അരി ആ രണ്ടോ മൂന്നോ മേടിച്ചോ ആ പിന്നെ റവ ആട്ട റവ ലൂസ് മതി ആട്ട മറ്റേ ആശിർവാദ്

പിന്നെ മറ്റേ പയർ പരിപ്പ് അങ്ങനത്തെ ഐറ്റം മേടിക്കണം ആ വൻപയർ ചെറുപയർ കടല ഗ്രീൻ പീസ്

പരിപ്പോ ആ പരിപ്പ് വേണം ഉഴുന്ന് പരിപ്പ് ഒക്കെ മേടിച്ചോ മേടിച്ചോ

സാമ്പാർ പരിപ്പോ ആ സാമ്പാർ പരിപ്പ് ആ സാമ്പാർ പരിപ്പ് മതി പിന്നെ ചിക്കെൻ ഇത് മസാലയും കൂടെ വേണം മസാല മല്ലിപ്പൊടി മുളക് മല്ലിപ്പൊടി മുളക്പൊടി ചിക്കൻ മസാല ഇങ്ങനത്തെ പച്ചക്കറി ആ ആ പച്ചക്കറിയും കുറച്ച് മേടിക്കണം ആ ആ ഭയങ്കര വിലയാണ് കുറേശ്ശെ ശ്ശെ മേടിക്ക് തോരൻ്റെ ഐറ്റം പിന്നെ സാമ്പാറിൻ്റെ എല്ലാം കറച്ച് ആ മീനും എല്ലാ വേണം ആ കരിമീനോ കരിമീൻ തീർന്ന് ഇനി ഇപ്പോൾ വേണമെന്നില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിര് മത്തി ഉണ്ടെങ്കിൽ മത്തി മേടിര് കുറെ നാളായില്ലേ മേടിച്ചിട്ട് ആ വില ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി നാളായത് കൊണ്ട് കുറച്ച് ഉണ്ടെങ്കിൽ മെഡിക്ക്യ എല്ലാവർക്കും ഇപ്പോൾ മത്തി കൂട്ടാനാണ് പൂതി

ആ വേറെ പിന്നെ എങ്ങനെയാണ് ആ ചിക്കനൊക്കെ പക്ഷിപ്പനി ആയത്കൊണ്ട് വേണ്ട ബീഫ് വല്ലതും മെടിക്ക്ന്നാ ആ അതാണ് പറഞ്ഞത് എന്നാൽ ബീഫ് മേടിക്ക് ബീഫ് ബീഫ് ഒരു കിലോ ഇങ്ങ് മേടിച്ചോ ഇനി ഇപ്പോൾ എപ്പോഴും എപ്പോഴും മേടിക്കണ്ടല്ലോ ആ അത് കുഴപ്പം ഇല്ലന്നെ മേടിക്കുന്നതിന് എന്നാ ഇപ്പോൾ ആ എന്ന അത് അത്രയൊക്കെ ഉള്ളു അത് കൂടെ ആവുമ്പോൾ മതി

ആ അതൊന്നും വേണ്ട ആ എന്നാൽ എന്നാൽ അത്രയും മേടിച്ചാൽ മതി എന്നാ വെക്കുവാണ് എന്നാൽ ആ ആ ഓക്കെ